ഹലോ ഇത് എച്ച് പി ഗ്യാസ് സെന്ററല്ലേ ഞാന് ഷൈജകുമാരിയാണ് എന്റെ റെഫറന്സ് നമ്പര് പൂജ്യം നാല് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ടാണ് എന്റെ ആധാര് കാര്ഡിന്റെ അവസാന നാലക്കങ്ങള് നാല് എട്ട് മൂന്ന് രണ്ടാണ് ഞാനിപ്പോള് വിളിക്കുന്നത് മുന്നത്തെ വീട്ടില്നിന്നും ഞാന് പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് സിലണ്ടറ് പഴയ വീടിന്റെ മേല്വിലാസത്തിൽ അയക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല ഞാന് പുതിയ വീട്ടിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അതിന്റെ അഡ്രസ്സ് ഞാന് തരാം അതായത് കെ എസ് ഭവന് ആഞ്ഞിപ്പിള റ്റി വി എമ്മെന്നാണ് പുതിയ വീടിന്റെ അഡ്രസ്സ് അപ്പോൾ അവിടുത്തേയ്ക്ക് കൊണ്ടുവന്നാല് മതിയാകും സിലണ്ടറ് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോള് ദയവായി എന്റെ ഫോണ് നമ്പറിലേക്ക് വിളിക്കുക ഞാനെന്റെ ഫോണ് നമ്പറ് തരാം പൂജ്യം പൂജ്യം ഒന്ന് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് എന്നതാണ് പുതിയ ഫോണ് നമ്പര് ദയവായി പുതിയ വീട്ടിലേക്ക് ഗ്യാസ് സിലണ്ടര് എത്തിക്കാന് വേണ്ടി ശ്രദ്ധിക്കുക ഓരോ മാസവും ഗ്യാസ് തീരുന്നതിന് മുന്പേതന്നെ ഞാൻ ഒരാഴ്ച്ചക്ക് മുന്പേ ഞാന് വിളിച്ച് അറിയിച്ചുകൊള്ളാം അപ്പോൾ ഈ റൂട്ടിൽ ഗ്യാസ് കൊണ്ടുവരുന്ന സമയം എന്റെ വീട്ടിലും ഗ്യാസെത്തിക്കാന് വേണ്ടി ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ദയവായി എന്റെ ഈ കണ്സേണ്സ് സ്വീകരിക്കണമെന്ന് ഞാനോര്മ്മിപ്പിക്കുന്നു അടുത്ത മാസം മുതൽ എന്റെ പുതിയ വീട്ടിലേക്ക് ഗ്യാസ് പുതിയ അഡ്രസ്സില് കൊണ്ടുവന്നാല് മതിയാകും താങ്ക് യൂ